സ്കൂളില് വായനാശാലകളൊക്കെ ഉണ്ടായിരുന്നു വായനാദിനവുമൊക്കെയാണെങ്കിലും സ്കൂളുകളിലൊക്കെ ആചരിക്കുന്നുണ്ടായിരുന്നു ഓരോ ക്ലാസ്സുകളില് നിന്നും നന്നായിട്ട് വായിക്കാനറിയാവുന്ന കുട്ടികളെയൊക്കെ ടീച്ചർമാര് തെരഞ്ഞെടുത്തിട്ട് അവരെക്കൊണ്ട് നല്ല നല്ല പുസ്തകങ്ങളൊക്കെ വായിപ്പിച്ച് മത്സരങ്ങളൊക്കെ നടത്തി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു സ്കൂളില് ലൈബ്രറിയെന്ന് പറയാനായിട്ട് അങ്ങനെയൊരു ലൈബ്രറി റൂം സ്കൂളിലങ്ങനെയില്ലായിരുന്നു എങ്കിലും ഓരോ ക്ലാസ്സിലെയും ടീച്ചർമ്മാര് ഓരോ കുറെ പുസ്തകങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഓരോ ആഴ്ചയിലും കുട്ടികൾക്ക് ഓരോ പുസ്തകങ്ങള് വെച്ച് നൽകി പിറ്റത്തെ ആഴ്ച്ച വരുമ്പോള് ആ പുസ്തകങ്ങള് തന്നെ മറ്റൊരു കുട്ടിക്ക് കൈമാറി അങ്ങനെ പുസ്തകങ്ങളൊക്കെ വായിക്കാനായിട്ട് ഓരോ ടീച്ചർമാരും കുട്ടികളെ നൽകിയിരുന്നു പിന്നെ ഇപ്പോഴത്തെ കാലത്തൊക്കെയാണെങ്കില് പല സ്ഥലങ്ങളിലും ലൈബ്രറികള് കൂടുതലായിട്ടുണ്ട് പലതരത്തിലുള്ള നല്ല നല്ല പുസ്തകങ്ങളൊക്കെ അറിവ് നൽകുന്ന പുസ്തകങ്ങളും അല്ലാതെ ഒരു വ്യക്തിക്ക് സന്തോഷം നൽകുന്ന രീതിയിലുള്ള പുസ്തകങ്ങളൊക്കെ പല ലൈബ്രറികളിലുമുണ്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പുസ്തകങ്ങളായിരിക്കും ഇഷ്ടപ്പെടുന്നത് ഇപ്പോൾ എനിക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന പുസ്തകമെന്ന് പറയുന്നത് മനസ്സിന് സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ ഒരു കോമഡി പോലെ ചിരിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള പുസ്തകങ്ങളൊക്കെയായിരിക്കും എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്നത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ചിരിക്കുടുക്ക ബാലരമ അങ്ങനെയുള്ള രീതിയിലുള്ള പുസ്തകങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് പിന്നെ ഇതുകൂടാതെ മറ്റു പുസ്തകങ്ങളും വായിക്കാറുണ്ട് ഏറ്റവും കൂടുതല് വായിക്കുന്നത് മലയാളം പുസ്തകങ്ങൾ തന്നെയാണ് ഞാനേറ്റവും കൂടുതൽ വായിക്കുന്നത് ഇന്നയാളുടെ പുസ്തകങ്ങളെന്ന് പറയാൻ പറ്റുകയില്ല എല്ലാവരുടെയും പുസ്തകങ്ങളും പല പുസ്തകങ്ങളും ഞാന് വായിക്കാറുണ്ട് പിന്നെ പൗലോ കൊയ്ലോയുടെ പുസ്തകങ്ങള് ഒരുപാടിഷ്ടമാണെന്ന് പറയാം അതിലെ ഓരോ കാര്യങ്ങളും എനിക്ക് വളരെ മനോഹരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കൂടാതെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തില് പറഞ്ഞിരിക്കുന്ന ഒരു സിനിമയിലും പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട് നിങ്ങളുടെ ആഗ്രഹം സാധിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെയുണ്ടാകുമെന്നൊരു വാക്യം പൗലോ കൊയ്ലോ തൻ്റെ പുസ്തകത്തിലൂടെ പറഞ്ഞുവെയ്ക്കുന്നുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങള് എനിക്ക് വായിക്കാൻ വളരെയിഷ്ടമാണ് എങ്കിലും ബാക്കി മറ്റുള്ള എഴുത്തുകാരുടെ പുസ്തകങ്ങളും ഞാന് വായിക്കാറുണ്ട് മനസ്സിന് സന്തോഷം നൽകുന്ന രീതിയിലുള്ള പല ഓർമ്മകളും എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത് ഏതൊരു വ്യക്തിക്കും ഗുണകരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും അപ്പോള് ചില വ്യക്തികള് ഓര്ക്കാനിഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളുണ്ടായിരിക്കാം അങ്ങനത്തെ ഓർമ്മകള് അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള പുസ്തകങ്ങളുമുണ്ട് ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത് ഏതൊരു വ്യക്തിക്കും സന്തോഷം നൽകുന്നൊരു കാര്യംതന്നെയായിരിക്കും പിന്നെ ഒരു സങ്കടഘട്ടത്തില് നില്ക്കുന്നൊരു സമയത്ത് ഒരു വിഷമം നിറഞ്ഞ് നില്ക്കുന്നൊരു സമയത്ത് ഒരു വ്യക്തി ഒരു നല്ലൊരു പുസ്തകം വായിക്കുകയാണെങ്കില് ആ പുസ്തകത്തിലൂടെ തന്നെ ആ വ്യക്തിക്ക് സങ്കടം മാറി സന്തോഷമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അങ്ങനത്തെ സങ്കടപ്പെട്ട് നില്ക്കുന്ന ഒരവസ്ഥയില് ഇതുപോലെ നല്ല നല്ല ഓർമ്മകളൊക്കെ കൊണ്ടുവരുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത് ഏതൊരു വ്യക്തിയുടെയും മനസ്സിനും ആരോഗ്യത്തിനും നല്ലതായിരിക്കും ഇന്നീ പല ത പല കോളേജുകളിലൊക്കെയാണെങ്കിൽപ്പോലും പല ആളുകളുടെയും പുസ്തകങ്ങളുണ്ടായിരിക്കും ഓരോ ലൈബ്രറിയിലും ഓരോ പുസ്തകങ്ങളും വിവിധ രീതിയിലായിരിക്കും അടക്കിവെച്ചിരിക്കുന്നത് അപ്പം ഒരു വിഷയത്തെക്കുറിച്ച് തന്നെ പ്രതിപാദിക്കുന്ന കുറച്ച് പുസ്തകങ്ങളൊരു ഭാഗത്തും മറ്റൊരു വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കുറച്ച് പുസ്തകങ്ങള് മറ്റൊരു ഭാഗത്തുമൊക്കെയായിട്ടായിരിക്കും ലൈബ്രറിയില് ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഈ ക്രമങ്ങളുടെ സ്ഥാനമെങ്ങാനും തെറ്റിപ്പോയിട്ടുണ്ടെങ്കില് പിന്നീട് ആ പുസ്തകം കണ്ടുപിടിക്കാനായിട്ട് മറ്റൊരു വ്യക്തിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരിക്കും ഓരോ പുസ്തകത്തിനും ഓരോ നമ്പറും അത് അത് വെയ്ക്കേണ്ട ഓരോ സ്ഥാനവുമുണ്ട് അപ്പം എടുക്കുന്ന പുസ്തകങ്ങള് എടുത്ത സ്ഥലത്തുതന്നെ തിരിച്ച് വെയ്ക്കുകയാണെങ്കിൽ ആ പുസ്തകം മറ്റൊരു വ്യക്തിക്ക് വായിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അത് പെട്ടെന്നെടുക്കുവാനും വായിക്കുവാനുമൊക്കെ സാധിക്കും മറ്റ് ആ പുസ്തകത്തിന്റെ സ്ഥാനമെങ്ങാനും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് വായിക്കാൻ വരുന്ന വ്യക്തിക്ക് ആ പുസ്തകം കണ്ടുപിടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഓരോ പുസ്തകത്തിനും ഓരോ നമ്പര് ഒരോ ഷെല്ലുകളൊക്കെ നൽകുന്നത് വളരെ നല്ലതായിരിക്കും അത് ലൈബ്രറിയില് പുസ്തകങ്ങള് കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പം ഉള്ളൊരു കാര്യം തന്നെയായിരിക്കും പിന്നെ ലൈബ്രറിയില് നിശ്ശബ്ദത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ലൈബ്രറിയിലിരുന്ന് വായിക്കുന്നൊരു വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയില് ആയിരിക്കണം മറ്റൊരു കുട്ടി പുസ്തകം വായിക്കാനായിട്ട് അതെന്നുവെച്ചാല് ഒരു കുട്ടി പുസ്തകം വായിക്കുമ്പോൾ വീട്ടിലിരുന്ന് വായിക്കുന്നതുപോലെ ഉറക്കെയൊന്നും വായിക്കാതെ മനസ്സിരുത്തി പതിയെ ചെറിയ സ്വരത്തില് തന്നെ വായിക്കുന്നതായിരിക്കും ആ കുട്ടിക്കും മറ്റ് വ്യക്തികൾക്കും നല്ലത് പിന്നെയും എനിക്കിഷ്ടമെന്ന് പറയുന്നത് ഈ ചിരിക്കുടുക്ക ബാലരമ അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെയാണ് എനിക്ക് വലിയ ഇഷ്ടം ഇഷ്ടങ്ങള് അതുപോലെതന്നെ മറ്റു കുട്ടികൾക്കും ഇപ്പം ചെറിയ കുട്ടികൾക്കാണെങ്കില്പ്പോലും പുസ്തകം വായിക്കുന്നതിനേക്കാളും കൂടുതലിഷ്ടം നിറം കൊടുക്കാനും പടം വരയ്ക്കാനും അങ്ങനെയുള്ളതൊക്കെയായിരിക്കും അപ്പം ഓരോ പുസ്തത്തിലും വ്യത്യസ്ഥങ്ങളായിട്ടുള്ള പടങ്ങളൊക്കെ ഉണ്ടാകുമ്പോള് ആ കുട്ടിക്ക് അതിന് നിറം കൊടുക്കണമെന്നുള്ളൊരു തോന്നല് തോന്നുകയും പിന്നെ പിന്നീട് അതിലേക്ക് തന്നെ ശ്രദ്ധ കൊടുത്ത് ആ ചിത്രത്തെ നിറങ്ങളുപയോഗിച്ച് വർണ്ണമാക്കാനും ആ കുട്ടിക്ക് സാധിക്കും ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ഓരോ കുട്ടികൾക്കും വളരെ നല്ലതായിരിക്കും പിന്നെ ഓരോ വ്യക്തികളുടെയും പുസ്തകങ്ങള് ഓരോരുത്തര്ക്കും പല രീതിയിലായിരിക്കും അനുഭവപ്പെടുന്നത് അതായത് ഒരു വ്യക്തിയുടെ ഒരു പുസ്തകം ഒരാള് വായിച്ചുകഴിയുമ്പോൾ ആ വ്യക്തിക്ക് അനുഭവപ്പെട്ട അതേ ഓർമ്മങ്ങൾ അല്ലെങ്കിൽ അതേ അനുഭവങ്ങള് തന്നെയായിരിക്കണം മറ്റൊരു വ്യക്തിയിലുമുണ്ടാക്കുന്നതെന്ന് നിർബന്ധമില്ല പലർക്കും പല രീതിയിലായിരിക്കും അത് അനുഭവപ്പെടുന്നത് പിന്നെ എല്ലാ വ്യക്തികളും എഴുതുന്നതിനും ഓരോ എല്ലാ വ്യക്തികളും എഴുതുന്ന ഓരോ വാക്യങ്ങൾക്കും അല്ലെങ്കിൽ കവിതയെഴുതുമ്പോഴാണെങ്കിലും ഓരോ വരികൾക്കും അതിന്റേതായിട്ടുള്ള അർത്ഥങ്ങളുണ്ട് മലയാള ഭാഷയുടെ പിതാവെന്ന് അറിയപ്പെടുന്ന എഴുത്തച്ഛൻ്റെ കവിതകളാണെങ്കില്പ്പോലും ഓരോ വ്യക്തികൾക്കും പല രീതിയിലായിരിക്കും അനുഭവപ്പെടുന്നത് പിന്നെ പുസ്തകങ്ങൾ വായിക്കുന്നത് ഓരോ വ്യക്തിയുടെയും അറിവ് വർധിപ്പിക്കുന്നതും പിന്നെ അറിയാന് പാടില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് കൂടുതല് മനസ്സിലാക്കുവാനായിട്ടും സാധിക്കുന്നതാണ് പുസ്തകം വായിക്കുന്നത് ഒരു വ്യക്തിയില് ഏറ്റവും വളരെ മികച്ചൊരു കാര്യം തന്നെയായിരിക്കും